ബോളിവുഡ് ടോളിവുഡ് ഇന്ത്യയിലെ ഫാഷൻ ട്രെൻ്റുകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഷനൊരു പരിധി വരെ നല്ലതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതിന്മാ കയ്യില്ലാത്തതും പിന്നെ കക്ഷം കാണിച്ച് നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഒട്ടു മുക്കാലും പേർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ ടൗണുകളിലൊക്കെ ഇപ്പം പിന്നെയും ഇതായിട്ടുണ്ട് എങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെ അമ്മമാർക്കും ആണുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നമ്മൾ ഭംഗിയുണ്ട് അത് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുമ്പോൾ കാണുമ്പോൾ പിള്ളേരെ കാണുമ്പോൾ ഭംഗിയുണ്ട് പക്ഷെ ഇറക്കം കുറഞ്ഞതും ഇങ്ങനെ സ്ലീവ്ലെസ്സും അതൊക്കെ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടായി തീരുന്നുണ്ട് അതൊക്കെ കാണുന്നതുമൊക്കെ നമുക്കൊക്കെ പക്ഷെ വിദേശരാജ്യങ്ങളിലൊന്നൊന്നും പ്രശ്നമല്ല പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന സാരിയെന്നു പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആയതു കൊണ്ടായിരിക്കും സാരിയോടാണ് കൂടുതലിഷ്ടം സാരി ധരിക്കുന്നത് നല്ലതാണ് നല്ല ഭംഗിയാണ് സാരിയുടുത്താൽ പിന്നെ ഈ യാത്രാ സൗകര്യത്തിനൊക്കെ എപ്പോഴും ചുരിദാറോ അങ്ങനെയുള്ള സാര ഇതൊക്കെയാണ് നല്ലത് പിന്നെ സിനിമകൾ സിനിമകളിൽ പണ്ടത്തെ സിനിമകളിലെ ശോഭന ഷീല കാവ്യ മാധവൻ അവരെല്ലാം ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ സാരികളും ഒക്കെ ഒരു പരിധി വരെ നല്ലതാണ് ശോഭനയുടെ ബോഡി സ്ട്രക്ച്ചറും അതിനു ചേരുന്ന സാരിയും സ്ട്രക്ക് പിന്നെ ബോഡി ഷേപ്പിനു ചേരുന്ന ഡ്രസ്സ് ഡ്രസ്സുകൾ ധരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമാണ് അങ്ങനെ പിന്നെ ചില ശോഭനയുടെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മ മണിചിത്രത്താഴിനകത്തൊക്കെ ശോഭന ഉടുക്കുന്ന ഡ്രസ്സ് സാരികളൊക്കെ വളരെ നല്ലതായിരുന്നു പിന്നെ സിനിമയിലെ വസ്ത്രത്തിനു സമാനമായ വസ്ത്രങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോയെന്നു ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത് കുറേ തയ്പ്പിച്ചിട്ടുണ്ട് പിള്ളേർക്കൊക്കെ വലിയവർക്കെനിക്കതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്നു വെച്ചാൽ നമ്മുടെ കേരളത്തിലെ വസ്ത്ര ധാരണ രീതി അത് ആയതു കൊണ്ടാണ് അങ്ങനെ എനിക്കതിനോട് വലിയ താൽപര്യം ഇല്ലാത്തതെങ്കിലും പക്ഷെ ചിലർക്ക് നല്ലതാണ് ചിലർ നല്ല ഭംഗിയാണ് അതിട്ടാൽ കുഴപ്പങ്ങളൊന്നുണ്ടെന്നെനിക്ക് തോന്നുന്നില്ല അതിലൊന്നും പലർക്കും പല രീതിയാണല്ലോ അതു കൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ വസ്ത്രങ്ങൾ സൃഷ്ടിക്കാനൊന്നും ശ്രമിച്ചു നോക്കിയിട്ടില്ല എങ്കിലും പറഞ്ഞു കൊടുത്ത് തയ്പ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ